കണ്ടിട്ടുണ്ട് ഇതിൽ പ്രധാനം ആദ്യമായിട്ട് കണ്ടത് സൂര്യഗ്രഹണമാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൂര്യഗ്രഹണം കണ്ടിട്ടുണ്ട് ടീച്ചർ സൂര്യഗ്രഹണം എക്സറേയുടെ പ്രിൻ്റ് വെച്ചിട്ട് നമ്മൾ സൂര്യഗ്രഹണം കാണിച്ചു തന്നിട്ടുണ്ട് അത് വളരെ വലിയൊരു അനുഭവമായിരുന്നു അതുപോലെ തന്നെ പിന്നെ കണ്ടിട്ടുള്ളതെന്തെന്ന് വെച്ചാൽ വാൽനക്ഷത്രമാണ് രാത്രി കാലങ്ങളിൽ നമ്മൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചില വാൽനക്ഷത്രങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ട് അതും വളരെ മികച്ച ഒന്ന് തന്നെയാണ് അതുപോലെ മറ്റൊന്ന് പറയുന്നത് ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണവും കണ്ടിട്ടുണ്ട് ഇതിൽ എനിക്കേറ്റവും കൂടുതൽ അനുഭവം അതായത് മികച്ച അനുഭവമായിട്ട് തോന്നിയിട്ടുള്ളത് വാൽനക്ഷത്രമാണ് നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള വാൽനക്ഷത്രങ്ങൾ കാണുന്നത് വളരെ ഒരു മികച്ച അനുഭവം തന്നെ ആയിരുന്നു